സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം സയൻസ് ആയിരുന്നു കാരണം നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ക്ലാസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കൂടുതൽ പുതിയ അറിവുകൾ ലഭിച്ചു പരിസ്ഥിതിയുമായി കൂടുതൽ ഒത്തിണങ്ങാൻ സാധിച്ചു അടുത്തിടപഴകാൻ സാധിച്ചു ക്ലാസ്സിൽ നിരവധി പരീക്ഷണങ്ങൾ ചെയ്യുകയും പുതിയ പുതിയ അറിവുകൾ രൂപപ്പെടുത്തുകയും ചെയ്തു